എനിക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ള ജോലി എന്നുപറയുന്നത് ഇപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ അവിടെ പോയതിന് ശേഷം വീട്ടു ജോലിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു എൻ്റെ എൻ്റെ ഹസ്ബൻറിൻ്റെ ഏട്ട ഏ ഏ ഏട്ടൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവരോടൊപ്പം വീട്ടു ജോലി ചെയ്യാൻ വരെ തീരെ ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല അവർ എന്തെന്ന് വെച്ചാൽ അവർ ചെയ്യു അവർക്ക് കുറച്ച് ഒ സി ഡി പ്രോബ്ലെംസ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ക്ളീ അല്ലെങ്കിൽ നല്ല വൃത്തി അല്ലെങ്കിൽ ഡെയിലി അടിക്കണം തുടക്കണം അങ്ങനെയുള്ളൊരു രീതി അപ്പോൾ നമ്മളെയും അത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് അവർക്കുണ്ടായിരുന്നത് നമ്മളും അത് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾ കൊണ്ട് നമ്മളെ കുത്തി നോവിക്കുന്നൊരു അവസ്ഥ നമുക്ക് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാതെ ആ രീതിയിൽ അങ്ങ് നിന്ന് കൊടുത്തു പിന്നീട് പിന്നീട് എനിക്ക് എൻ്റേതായ രീതിയിൽ ചെയ്തു പിന്നെ അത് അവിടെ ഇല്ലാതായി